പതിനാല് ഒന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി രണ്ട് പതിനേഴ് മൂന്ന് രണ്ടായിരത്തൊൻപത് പതിനാറ് ഏഴ് രണ്ടായിരത്തി പത്ത് മുപ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട്